കാർഷിക ഉൽപ്പന്നങ്ങൾ കടത്തുക എന്നുള്ളത് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പല സാധനങ്ങളും ഉൽപാദിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടു തന്നെ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇനങ്ങളൊക്കെ പലതും പല സ്ഥലത്ത് ഉൽപാദിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പ അതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമ്മളെ ഇവിടെ എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഉല്പാദിപ്പിക്കുന്നത് അവിടെ എത്തിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ ഇന്ന് ഗതാഗതത്തിൽ അതിനുള്ള സൗകര്യം ഉണ്ടോ എന്ന് വച്ചാൽ സൗകര്യം ഉണ്ട് പക്ഷെ അതൊന്നുകൂടി നവീകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം നമുക്ക് അറിയാം പലപ്പോഴും അത് മുടങ്ങുന്ന അവസ്ഥ ഉണ്ട് നമ്മൾ ന്യൂസസിലൊക്കെ കാണും തമിഴ്നാട്ടിൽ നിന്ന് ഉള്ളി എത്തിയില്ല ഉള്ളി ലോറികൾ വൈകുന്നു വരാൻ വൈകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റിസ്ക്കുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു നമ്മൾ അതിന് ഇത് കാണണം എന്നുള്ളതാണ് കാരണം അത് മെച്ചപ്പെടുത്തണം അത് കൃത്യമായിട്ട് നമ്മൾ ഉറപ്പു വരുത്തണം റെഗുലർലി ഇപ്പം നടക്കും ട്രാൻസ്പോർട്ടേഷൻ നടക്കും അതിന് ഗതാഗതം ശരിയായിരിക്കും അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പു വരുത്തണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇന്നത്തെ ഫേസ് ചെയ്യുന്ന വലിയ ഒരു പ്രശ്നമാണ് അത് നല്ല ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ വരാതാവുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്ന് വച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സ്വഭാവികമായിട്ട് വില കൂടും സാധനം ഇല്ല ഇത് ഇന്ന ആൾ ഇറക്കിയാതാണ് ഇനി സ്റ്റോക്ക് വരുന്നില്ല അപ്പോൾ പൈസ കൂട്ടണം എന്ന് പറഞ്ഞിട്ട് കടക്കാർ പൈസ കൂട്ടും അപ്പം പാവങ്ങൾ ബുദ്ധിമുട്ടും ആ സാധനം വാങ്ങാൻ പറ്റില്ല ചിലപ്പം അത്ര അത്യാവശ്യമായിട്ടുള്ള സാധനായിരിക്കും വീട്ടിലേക്ക് എസൻഷ്യലായിട്ടുള്ള സാധനായിരിക്കും പക്ഷെ അവർക്ക് അത് വാങ്ങാൻ പറ്റില്ല കാരണം എന്താണ് അതിന് വില കൂട്ടി കൂട്ടിയിട്ടിരിക്കുകയാണ് നല്ല രീതിയിൽ വില കൂടിയിരിക്കുകയാണ് കടക്കാരുടെ ഇഷ്ടത്തിന് കൂട്ടിയിട്ടുണ്ടാവും അപ്പം ചോദിച്ചാൽ പറയും സാധനം വരുന്നില്ല അവിടേ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറയാം അപ്പം അത് വലിയ ഒരു വിഷയമാണ് അപ്പം അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പ ഗതാഗതത്തിന് ഒരു പ്രത്യേക ഇത്തരത്തിലുള്ള ഫുഡ് ഉപനങ്ങൾ പ്രത്യേക പെർമിറ്റ് കൊടുത്തിട്ട് പ്രത്യേക സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ പ്രത്യേക അലവൻസ് കൊടുത്തിട്ട് അതൊക്കെ ഇതിന് ബാധിക്കുന്നുണ്ടാവും അത് കടത്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നവർക്ക് കിട്ടുന്ന സാലറയിലോ അല്ല അവർക്ക് കിട്ടുന്ന അനുകൂല്യത്തിലോ ഒക്കെയുള്ള കുറവ് കാരണം മറ്റൊക്കെ ആയിരിക്കാം ഇങ്ങനത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് ചില കാരണങ്ങൾ അല്ലാതെ പ്രൊഡക്സ ഇല്ലാത്തത് മാത്രമായിരിക്കില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് വിശകലനം ചെയ്യാൻ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കുകയും ഇത്തരത്തിലുള്ള ഈ ഒരു ഫുഡ് സപ്ലിമെൻറ്സ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കി എന്താണ് പറയുക ഫുഡ് ഫുഡ് സാമ്പിൾസ് എക്സ്പോർട്ടേഷൻ അതുപോലെ ഫുഡ് ഐറ്റംസ് ട്രാൻസ്പോർട്ടേഷൻ അതൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തു ആ ഒരു രീതിയിൽ നടത്താൻ നമുക്ക് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വളരെ യൂസ്ഫുൾ ആവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതാണ് രീതിയിൽ ചെയ്താൽ മതി